നമ്മള് പി സി ആർ ജി ഓയില് വെളിച്ചെണ്ണ വേണമായിരുന്നു കോക്കനട്ട് ഒയില് അപ്പോൾ അതേപോലെ ഇതെന്തിനൊക്കെയാ യൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ മേടിച്ചാലും ആ

നല്ല ഓയിലാണല്ലേ

ആ ഇത് ഇതിപ്പോൾ നമുക്ക് ഈ ഒ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് പച്ച തേങ്ങേന്നാണോ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അതോ ഒണക്കയിൽനിന്നാണോ അതെ അല്ലെ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാമല്ലോ നമുക്ക് കുട്ടികൾക്ക് സൈഡ് എഫക്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് വേറെന്തെങ്കിലും ഒന്നും ഉണ്ടാവില്ലാല്ലോ ചുക്കൊന്നുണ്ടാവില്ലാല്ലേ ചിപ്സില് ഓ ഇതെന്നാൽ കുട്ടികൾക്കിപ്പോൾ ചെറിയ കുട്ടികൾക്ക് തേയ്ക്കാൻ പറ്റില്ല വലിയ ഇത്ര വയസിന് മുകളിലേക്ക് അങ്ങനെന്തെങ്കിലും ഉണ്ടോ

നമുക്കിപ്പോൾ എണ്ണ മേടിച്ചിട്ട് ഇത്ര ദിവസം കഴിഞ്ഞ് അത് കേട് വന്ന് പോവുക നമുക്കെത്ര ഇതിന് നിക്കും എന്നൊക്കെ

അതെ അല്ലെ അപ്പം നമുക്കിനി അതേ നമുക്കിതിപ്പോൾ എത്ര നിക്കും ഇത് എത്ര മാസം നിക്കും ഇത് അല്ലെങ്കിൽ എത്ര കൊല്ലം നിക്കും എത്ര കൊല്ലം നിക്കും ഈ എണ്ണ മേടിച്ച് പറഞ്ഞാല് ഒന്നരക്കൊല്ലം നമുക്കൊന്നും ഇടുവൊന്നും വേണ്ടാല്ലേ നമ്മളിപ്പം ഈ ടൈമില് അല്ല എണ്ണ മേടിച്ചു പറഞ്ഞാൽ അതില് ബെല്ലോക്കെ ഇട്ടുവെയ്ക്കില്ലേ അതൊന്നും വേണ്ടാല്ലോ ഒന്നും ഇട്ടുവെയ്കാതെ കേട് വരാണ്ട് ചുക്കൊന്നും അടിക്കാനൊന്നും നിക്കില്ലേ എണ്ണ ഇതെന്നാൽ ഇത് വേറെന്തിനൊക്കെ യൂസ് ചെയ്യും നമുക്ക് കേക്കുണ്ടാക്കാനും അതേപോലൊക്കെയുണ്ടേൽ യൂസ് ചെയ്യുവോ അത്

കമ്പനി നിർത്തിയല്ലേ അപ്പോൾ ഇപ്പോൾ ഓയില് എണ്ണയുണ്ടാകുമോ ഇപ്പോൾ ഇവിടെ ഒരു പത്ത് ലിറ്ററ് പത്ത് ലിറ്ററ് അപ്പോൾ എന്താ ഓ എണ്ണേൻ്റെ വില എന്താ വരുന്നത്

ആ ഒര് പത്ത് ലിറ്ററ് എണ്ണ വേണം ക്യാൻ ഇവിടുണ്ടാകുമോ അതോ നാളെ കൊണ്ട് വരണോന്നുണ്ടോ ക്യാന് ഇവിടുണ്ടോ ക്യാന് അതെ അല്ലെ ഓക്കെ അപ്പോൾ നാളെ ഒരു പത്ത് ലിറ്റർ എണ്ണ തന്നോളു ഓക്കെ പൈസ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് തരാം